കേരളത്തിൽ ഈ ഇടയ്ക്ക് ആരോഗ്യപരമായ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാൻ നമുക്കൊരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം ഞാൻ ഈ ഇടക്ക് ഒരുപാട് കേട്ടതാണ് ഇത്രത്തോളം ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത്രത്തോളം ആളുകൾക്ക് വണ്ണം പൊണ്ണത്തടിയുണ്ട് എ ത്രത്തോളം ആളുകൾക്ക് വണ്ണം തീരെയും കുറവാണ് എത്രത്തോളം ആളുകൾക്ക് രക്തത്തിൻ്റെ അളവ് കൂടുതലാണ് എത്രത്തോളം ആളുകൾക്ക് രക്തത്തിൻ്റെ അളവ് കു റവാണ് എത്രത്തോളം വീടുകളിൽ കോവിഡ് ബാധിച്ചിരുന്നു എത്രത്തോളം വീടുകളിൽ കോവിഡ് ബാധിച്ചിട്ടില്ല ഇങ്ങനെ പല വിഷയങ്ങളിലും സർവ്വേകൾ നടക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇത്രയും വിഷയങ്ങൾ പഠിച്ച് കൊണ്ട് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഒരു രോഗപ്രതിരോധ ശേഷികളെക്കുറിച്ചും അതുപോലെ തന്നെ രോഗം പകർച്ചയെക്കുറിച്ചും മറ്റും പഠിക്കാനൊരുപാട് ഇപ്പം നമ്മൾക്ക് അറിയാം കേരളത്തിലെ ഒരു രണ്ട് മൂന്ന് കൊല്ലമായി പ്രളയം വരലുണ്ടായിരുന്നു കുറച്ച് ഈ ഇടക്ക് രണ്ടായിരത്തി പത്തൊൻപതിലും പതിനെട്ടിലുമൊക്കെ പ്രളയം ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഇതുപോലെ മഴ കൂടുമ്പോൾ നമ്മളൊന്ന് ഭയപ്പെടാറുമുണ്ട് പക്ഷേ പ്രളയത്തിൽ പ്രളയം ഉണ്ടായിട്ടും കേരളത്തിൽ ഒരുപാട് മഴയുടെ അസുഖങ്ങൾ കുറവായിരുന്നു ഇതിന് കാരണം ഒരു പക്ഷേ കേരളത്തിൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യമായിരിക്കാം അവരുടെ ജീവിത രീതിയായിരിക്കാം അല്ലെങ്കിൽ മഴയുള്ള ഒരു നാടായത് കൊണ്ട് മഴയുടെ അസുഖങ്ങൾ ബാധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്താണെന്നറിയില്ല ഇവിടെ പ്രളയവും വെള്ളം കെട്ടി കിടക്കലും വളരെ അധികം കൂടുന്നൊരു സാഹചര്യത്തിൽ പോലും കേരളത്തിലെ ആളുകൾക്ക് രോഗത്തിൻ്റെ നിലവാരം കുറവായിരുന്നു ഇത് വളരെ ആശ്ചര്യമുള്ളൊരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇത്രയും ആശ്ചര്യമുള്ള വിഷയങ്ങളെ പഠിച്ച് ആ നമ്മുടെ നാടിൻ്റെ ആ ഒരു പ്രതിരോധ ശേഷിയെ അല്ല നമ്മളെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചും അറിഞ്ഞതിന് ശേഷം അതിനു പറ്റിയിട്ടുള്ള ഒരു പുതിയ രീതിയിലുള്ള ചികിത്സാ രീതി നമ്മളുടെ ആവശ്യത്തിനുള്ള പ്രത്യേകമായ ആരോഗ്യ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ കേരള സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നും ഗവേഷണങ്ങൾ നടക്കുന്നുമുണ്ട് എന്ന് നാം അറിയുന്നുമുണ്ട് അത് നമുക്കൊരുപാട് സന്തോഷം തരുന്നുമുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്